ഹലോ ഇത് റൈറ്റ് വേ ഹോട്ടൽ അല്ലേ എനിക്ക് ഓർഡർ ചെയ്യാനായിരുന്നു എനിക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് ചില്ലി ചിക്കൻ രണ്ട് ഫ്രൈഡ് റൈസ് പിന്നെ രണ്ട് പൊറോട്ട ഇത് നിങ്ങൾ എത്തിക്കേണ്ട വിലാസം തേവർ റോഡ് ആറാട്ടുപുഴ തൃശ്ശൂർ ലാൻഡ്മാർക്ക് ഒരു റൈസ് മില്ല് ആണ് അതിന് സമീപത്തെ വെള്ള രണ്ട് നില വീട്ടിലേക്കാണ് ഇത് എത്തിക്കേണ്ടത് പേര് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ മതി പേയ്മെൻറ്റ് ഞാൻ ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നതായിരിക്കും